ഹലോ ഹലോ ആ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ ആ ഏതിൻ്റെയാണ് ആ ക്ലാസ്സ്മേയ്റ്റിൻ്റെ ഉണ്ട് ക്യാമൽൻ്റെ ഉണ്ട് നട്രാജിൻ്റെ ഉണ്ട് ക്ലാസ്സ്മേയ്റ്റിൻ്റെത് ഇരുന്നൂറ്റൻപത് രൂപ ആ ആ പെൻസില് ഏതിൻ്റെയാണ് കളർ പ്പെൻസില് ക്യാമൽൻ്റെ മാത്രമേ ഉള്ളു ഇപ്പോൾ ആ അത് ഏത് എത്ര ഷേയ്ടൊള്ളത് വേണം പന്ത്രണ്ട് ഷേയ്ടൊണ്ട് ഇരുപത്തിനാല് ഷേയ്ടൊണ്ട് അൻപത് ഷേയ്ഡിൻ്റെ ഉണ്ട് അത് വന്നിട്ട് നൂറ്റിയൻപത് രൂപയാണ്

ഒന്നാണ് ഒന്ന്

ആ അത് പായ്ക്കറ്റായിട്ടാണ് ലൂസായിട്ടില്ല

അൻപത് പാക്കറ്റിൻ്റെ അൻപത് ഷീറ്റിൻ്റെ പാക്കറ്റൊണ്ട് നൂറ് ഷീറ്റിൻ്റെതുണ്ട് ഇരുന്നൂറ് ഷീറ്റിൻ്റെതുണ്ട് നൂറ് ഷീറ്റ് നൂറ്റിയിരുപത് രൂപയാണ് ഒരു മിൻറ്റെ എല്ലാം കൂടെ അഞ്ഞൂറ്റിരുപത് രൂപയാണ് വേറെന്തെങ്കിലും വേണൊ ഇത്രേം മതി ആ പേരെന്താണ് ആ ആ സുനിതേച്ചി ആ ശരി ശരി ആ എടുത്തു വെച്ചേക്കാമെ സുനിതേച്ചി വന്നാൽ മതി ശരി